ഇന്ന് കാലാവസ്ഥ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വേനൽക്കാലമായാലും മഴ പെയ്യുന്നുണ്ട് മഴക്കാലത്തും നല്ല വെയിലും തെളിയുന്നുണ്ട് വ്യത്യസ്തമായ കാലാവസ്ഥ രീതിയാണ് കണ്ടുവരുന്നത് ഇപ്പോൾതന്നെ ഇപ്പോൾ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ മഴക്കാലത്ത് നെൽക്കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് അനുയോജ്യമായ മഴ ലഭിക്കുന്നില്ല തിരിച്ച് അങ്ങനെ തന്നെയാണ് വേനൽക്കാലത്ത് വെയിലു തെളിയേണ്ട സമയത്ത് അതിനു പകരം മഴയാണ് ലഭിക്കുന്നത് ഇപ്പം വേനൽക്കാലത്ത് തന്നെയിപ്പോൾ വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം തുടങ്ങിയാൽപ്പിന്നെ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടൽ എല്ലാവരേയും മാറ്റിപ്പാർപ്പിക്കൽ ഒക്കെ കൊണ്ടിരിക്കുകയാണ് വിളകൾ സംരക്ഷിക്കാൻ ഇപ്പം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ നെൽക്കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽത്തന്നെ എല്ലാം മഴക്കാലത്ത് എല്ലാം വെള്ളത്തിലാവുകയും എല്ലാം നശിച്ചുപോവുകയും ഒക്കെ ചെയ്യുകയാണ് ആവശ്യത്തിന് അനുസരിച്ചുള്ള വിള ലഭിക്കുന്നില്ല